മാധ്യമള് മാധ്യമങ്ങളിൽ കാണിക്കുന്ന പരസ്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കില് പിന്നെ അത് ചിലതൊക്കെ നമുക്ക് വളരെ ഉപയോഗ ഉപകാരപ്രദമാണ് പക്ഷെ ചിലതൊക്കെ നമുക്ക് ഉപകാരപ്രദമല്ല കാരണം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് പിന്നെ നമ്മള് കൂടുതലും സാധനങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത് നമ്മള് അതായത് ടീവി സീരിയലുകള് പിന്നെ സിനിമകളങ്ങനെയുള്ള ടീവില് കാണുമ്പോഴാണ് കൂടുതലും നമ്മളതിനെക്കുറിച്ച് അറിയുന്നത് കാരണം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ചില പേരുകളൊന്നും അറിയില്ല കാരണം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എന്ത് ഒരു ടീവിലക്കെ ടീവില് എന്തെങ്കിലും പരിപാടി കാണുമ്പോൾ ഒരു പത്ത് പരസ്യമെങ്കിലും കാണാത്ത ആൾക്കാര് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മളീ കണ്ട പരസ്യം തന്നെ കണ്ടിന്യൂസായിട്ട് കണ്ട് കണ്ട് കണ്ട് കണ്ടോണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിൽ പതിയും അപ്പം നമ്മള് മാർക്കറ്റിലെന്തെങ്കിലും സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് മെയ്നായിട്ട് പെട്ടന്നത് കാണുമ്പോൾ നമുക്കത് പെട്ടന്നത് പെട്ടന്ന് ക്ലിക്കാകും കാരണം ഇതല്ലേ നമ്മള് പിന്നെ കണ്ടത് അപ്പം ഇത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റായിരിക്കും അതുകൊണ്ട് ടീവി യിൽ വന്നതെന്നുള്ള ഒരിതില് നമ്മള് അത് മേടിക്കുകയും ചെയ്യും പക്ഷെ എല്ലാം നല്ലതാന്നൊന്നും പറയുന്നില്ല എല്ലാത്തിലും കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നത് തന്നെയാണ് നമ്മുടെ പരസ്യമെന്ന് പറയുന്നത്